എന്റെ പ്രദേശത്ത് കലാകരകൗശല മേഘലയില് അവരുടെ കലകളും കരകൗശലങ്ങളിലും ഭൗതിക സ്വത്തവകാശം പവുക പവകാശം എന്നിവയുടെ പ്രശ്നങ്ങള് വളരെ നന്നായി തന്നെയാണ് നേരിടുന്നുണ്ട് അവരുടെ വസ്തുക്കള് അങ്ങനെ മറ്റുള്ളവര് കട്ടുകൊണ്ടുപോകുക എന്നു നമുക്ക് പറയാം അതങ്ങനത്തെ അവ സാദ്ധ്യത വളരെ കുറവുള്ള ഒരു പ്രദേശമാണ് എന്റെ പ്രദേശം തൃശ്ശൂര് എന്നത് കലയുടെ തലസ്ഥാനമായിട്ടാണ് കേരളത്തിന്റെ ത കലയുടെ തലസ്ഥാനമായിട്ടാണ് അറിയപ്പെടുന്നത് അതുകൊണ്ടുതന്നെ ഇവിടുത്തെ കരക കരകൗശല മേഖലകള് ഉള്ളവര് വളരെ അധികമാണ് അവിടെയുള്ള ആള്ക്കാര് അവരുടെ ഈ പകര്പ്പവകാശം സ്വത്തവകാശം എന്നീ പ്രശ്നങ്ങള് കൈകാര്യം ചെയ്യുന്നത് നിയമങ്ങള് ലൈസന്സുകള് കരാറുകള് പേറ്റന്റ്റുകള് വ്യാപാരമുദ്രകള് ലോഗോകള് എന്നിവയിലൂടെയാണ് ഇവിടുത്തെ നിയമങ്ങള് വളരേ കര്ശനമാണ് അതുപോലെതന്നെ ഇവിടുത്തെ കലാകാരന്മാര്ക്ക് ലൈസന്സുകളുണ്ട് പിന്നെ കരാറുകള് അവര് വളരെ നന്നായിട്ടാണ് എഴുതി ഒപ്പിട്ട് വാങ്ങിക്കാറ് അവര് പേറ്റന്റ്റുകള് എടുക്കുന്ന പതിവ് എന്റെ നാട്ടില് അധികം ഞാന് കേട്ടിട്ടില്ല എന്നാല് വ്യാപാരമുദ്രകളോ ലോഗോകളോ അവരുടെ ചിത്രരജനയാണെങ്കിലും കലയിലാണെങ്കിലും കരകൗശലത്തിലാണെങ്കിലും ഞാന് കാണാറുണ്ട്